വളർത്തു മൃഗങ്ങൾ ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ വീടുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള വളർത്തു മൃഗങ്ങൾ വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഉദാഹരണമായിട്ട് ആട് പശു കോഴി മുയൽ മത്സ്യം വളർത്തൽ കാട വളർത്തൽ ഇങ്ങനെ വിവിധങ്ങളായ ജീവികളെ നമുക്ക് വളർത്തി വരുമാനമുണ്ടാക്കാനായിട്ട് സാധിക്കും അതിപ്പം പശുവാണെങ്കിൽ ഒന്നോ രണ്ടോ പശു ഉള്ളവർക്ക് അതിനൊരു ഫാമായിട്ട് കൂടുതലായിട്ട് വളർത്താം അപ്പം അങ്ങനെ പശു ഫാമൊക്കെ വളർത്തുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അതിനൊത്തിരി സഹായം വരുന്നുണ്ട് വലിയ തൊഴുത്തുണ്ടാക്കാൻ പാല് വിൽക്കാനുള്ള നമുക്ക് സാഹചര്യങ്ങൾ മിൽമയിലൊക്കെത്തന്നെ ആണെങ്കിൽ അതിന് ഇൻഷുറൻസ് പിന്നെ പശു വളർത്തുന്നവർക്ക് വിവിധങ്ങളായ പ്രോത്സാഹന സമ്മാനങ്ങൾ കൂടുതൽ പാൽ അളക്കുന്ന ആളുകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ പശു വളർത്തലിനെ ഒത്തിരി അധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം പശു വളർത്തലിലൂടെ നമുക്ക് ശുദ്ധമായ പാല് വീട്ടിലുപയോഗിക്കാം പാല് തൈര് ഇങ്ങനെയുള്ള ഉപയോഗിക്കാൻ പറ്റും പാല് വിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ ശുദ്ധമായ പാല് കൊടുക്കാൻ സാധിക്കും അതിൽ കൂടുതലായിട്ട് മിൽമയിലൊക്കെ സൊസൈറ്റിയിലൊക്കെ അളക്കണെ നമുക്ക് നല്ലൊരു സംഖ്യ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരെമൗണ്ട് ഒരുമിച്ച് കൂട്ടി നമ്മുടെ വിവിധങ്ങളായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ പശുവിൻ്റെ ചാണകം വിറ്റാൽ നല്ലൊരു വളമാണ് നല്ല വിലയും കിട്ടുന്നതാണ് പശു വളർത്തൽ അപ്പോൾ പശു വളർത്തൽ ഒരു കുടുംബത്തിൽ ധാരാളം നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ പശു വളർത്തൽ കൊണ്ട് കഴിയുന്ന കുടുംബങ്ങളുണ്ട് പിന്നെ വലിയ വലിയ വലിയ ഫാമുകളുണ്ട് ഇരുപതും അൻപതും നൂറും കണക്കിന് പശുക്കളെ വളർത്തുന്ന അന്നേരം അവിടെ പശുവിനെ കറക്കാനൊക്കെ ആയിട്ട് മഷീൻ ഉണ്ടായിരിക്കും അപ്പം തൊഴുത്ത് അതിനനുസരിച്ചിട്ടുള്ള ആധുനിക രീതിയിലുള്ള തൊഴുത്തുകൾ ഫാനും കൂളിങ്ങും ഒക്കെ പശുക്കൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള തൊഴുത്തറേഞ്ച്മെൻറ്റ് പിന്നെ ധാരാളം പാല് കിട്ടുന്ന പുതിയ ഇനത്തിലുള്ള പശുക്കളെ മേടിച്ച് നമ്മൾ വളർത്തണ് അപ്പം അതുങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഷുറൻസ് പശുക്കളെ ആണെങ്കിലും ഇൻഷുർ ചെയ്തിരിക്കണം രോഗ പ്രതിരോധ ശേഷി ഉള്ള ഭക്ഷണ സാധങ്ങങ്ങളും മരുന്നും ഒക്കെ കൊടുത്ത് സമയാ സമയങ്ങളിൽ ശുശ്രൂഷിച്ച് കൊണ്ട് വരണ്ടതാണ് പശു എന്ന് പറയുന്നത് ഒരു നല്ലൊരു വരുമാനമാർഗ്ഗമാണ് അതിൽ താത്പര്യമുള്ളവർക്ക് എത്ര പശുക്കളെ വേണമെങ്കിലും സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ വളർത്താനായിട്ട് ഗവണ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇനി പശു വളർത്താൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ആട് പാവപ്പെട്ടവൻ്റെ പശു എന്നാണ് ആടിനെ അറിയപ്പെടുന്നത് അപ്പം ആട് ചെറി ഒരു ജീവി ആയതു കൊണ്ട് തന്നെ ഒത്തിരി ആരോഗ്യമൊന്നു ഇല്ലാത്തവർക്കാണെങ്കിലും ആടിനെയൊക്കെ വളർത്താനായിട്ട് സാധിക്കും ആടിൻ്റെ പാലിന് നല്ല പോഷക ഗുണമുള്ളതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആട്ടും പാലാണ് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് താത്പര്യപ്പെടുന്നത് കൊഴുപ്പ് കുറവായതു കൊണ്ട് തന്നെ കഫക്കെട്ട് അദിയായവ ഉണ്ടാകുന്നില്ല അത് കൊണ്ട് തന്നെ ആട്ടുമ്പാലിന് നല്ല വില കൊടുത്തെങ്കിലേ ആട്ടുമ്പാൽ കിട്ടുകയുള്ളൂ പശുമ്പാലിൻ്റെ അൻപത്തഞ്ച് അൻപത്താറു രൂപയാണെങ്കിൽ ഇരുനൂറ് ഇരുന്നൂറ്റൻപത് രൂപയൊക്കെയാണ് ആട്ടുമ്പാലിൻ്റെ വിലയാണ് അപ്പം ആട് വളരെ ശാന്തമായൊരു ജീവിയും കൂടിയാണ് അപ്പം നമുക്കൊരു വീട്ടിൽ ഒരാടുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന വെള്ളവും വീട്ടിലുണ്ടാകുന്ന പഴത്തൊലി വീടിന് ചുറ്റുമുള്ള ഇലയൊക്കെ പറിച്ചിട്ട് കൊടുത്താൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആടിനെ വരെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റും ആടിനെ ഇതുപോലെ ഫാമാക്കിയിട്ട് വലിയ കൂടുണ്ടാക്കി വ്യവസായിക അടിസ്ഥാനത്തിലായിട്ട് ആട് കൃഷിയും നടത്താവുന്നതാണ് അപ്പം അപ്പം ഇങ്ങനെ ആടിൻ കുഞ്ഞുങ്ങളെ വിൽക്കാനുള്ള മാർക്കറ്റിങ്ങൊക്കെ നമ്മൾ കണ്ടത്തേണ്ടിയിരിക്കുന്നു അപ്പം ആട് പശു ഇതെല്ലാം വളരെ ഒരു കുടുംബത്തിന് കൂട്ടമായിട്ട് വളർത്താനും നല്ലൊരു ജീവിത മാർഗ്ഗമാണ് പിന്നെ ചെറുകിട രീതിയിൽ വളർത്തുവാണ് മെയിൻ വളർത്തൽ അതൊരു സമയം കളയുക ടൈം പാസ്സിങ്ങും എൻജോയ്മെൻറ്റും ഒക്കെ കൂടിയാണ് മീൻ വളർത്തൽ മീനിൽ നിന്നും ധാരാളമായിട്ട് നമ്മൾ ശുദ്ധമായ മീനു വിഷമില്ലാത്ത മീൻ നമുക്കുപയോഗിക്കാം അതുപോലെ തന്നെ പിടിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ അതിന് സ്ഥലം കുളം ശുദ്ധമായ വെള്ളം തീറ്റ ഇതെല്ലാം കൊടുത്ത് അതിനെ പരിചരിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കോഴി ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ കോഴിയുണ്ടെങ്കിൽ ആ വീട്ടിലേക്കുള്ള മുട്ടയുടെ ആവശ്യം സാധിച്ച് കിട്ടും ഇനി ഫാമായിട്ട് കോഴി ഫാം വളർത്തുന്ന രണ്ട് തരത്തിലുള്ള കോഴി ഫാം ഒണ്ട് ഒന്ന് ഇറച്ചിക്കോഴി ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്ന ഇറച്ചിക്കോഴി അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാടൻ കോഴികളെ വളർത്തി മുട്ടക്കും മാംസത്തിനുമായിട്ട് വേണ്ടിയിട്ട് നാടൻ കോഴികളെയും വളർത്തി വിൽക്കാവുന്നതാണ് അതിനു കുറേ സ്ഥലം ഒന്നും വേണ്ട ചെറിയ അഞ്ച് പത്ത് സെൻറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒരു കോഴിക്കൂടൊക്കെ വളർ ഉണ്ടാക്കി കോഴിയെ വളർത്തി ചെറിയ ഒരു വരുമാന രീതിയിൽ പോകാൻ സാധിക്കും പിന്നെ വലിയ രീതിയിലുള്ള ഫാമൊക്കെ ആണെ കോഴി ഫാമുകളാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി വളർത്തി അതിനെ വിൽക്കാവുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ കോഴിയെപോലെ തന്നെയാണ് കാടയും മുയൽ മുയലിറച്ചിയൊക്കെ നല്ല ഇറച്ചിയാണ് അപ്പം ഇതൊക്കെ നമുക്ക് വിൽക്കാനും വളർത്താനുമായിട്ട് നമ്മുടെ ജീവിത വരുമാനത്തെ വർദ്ധിപ്പിക്കാനുമായിട്ട് ഈ വളർത്തു മൃഗങ്ങളെ കഴിയും അപ്പോൾ ഇത്തിരി വിദ്യാഭാസപരമായിട്ട് കഴിവില്ലാത്തവർക്കാണേൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിക്കും ഇനി നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്